ഇതിൽ ചിലതൊക്കെ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പ്ലംബിംഗ് പ്ലംബിംഗിനൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ കാരണമെന്താണെന്നു വച്ചാൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു പ്ലംബറെ പുറമെ നിന്ന് വിളിക്കുന്നതിലും നല്ലതാണല്ലോ നമ്മൾ വീട്ടിൽത്തന്നെ ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ പ്ലംബിംഗ് ആ ഒരു പണി എടുക്കുന്നത് നമ്മൾക്കിപ്പം പുറമെ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു അഞ്ഞൂറു രൂപ വച്ച് എന്തായാലും ഒരു ദിവസം കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾക്ക് ഒരു സ്വന്തമായിട്ടൊരു പ്ലംബിംഗ് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ഒരു വെള്ളം ഇപ്പോൾ ടാപ്പിൽ വരുന്നില്ല വരുന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്താ വച്ചാൽ ചെയ്യാമല്ലോ അങ്ങനെ അത് പഠിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം സ്കൂളിൽ ഉണ്ടായിരുന്നു പിന്നെ തുന്നൽ തുന്നൽ നമ്മളിപ്പോൾ പുറമേ പോയി പഠിക്കുന്നതിലും നല്ലതല്ലേ നമുക്ക് സ്കൂളിൽതന്നെ പോയിട്ട് അവരെല്ലാം ഒരുമിച്ച് പഠിക്കുന്നത് അത് തുന്നൽ പഠിപ്പിച്ചാൽ എനിക്ക് കൊള്ളാം എന്നു തോന്നിയിരുന്നു പിന്നെ മൃഗസംരക്ഷണം അതും പഠിപ്പിച്ചാൽ കൊള്ളാം എന്നുണ്ട് എല്ലാവരോടും എല്ലാവർക്കും ഇപ്പം മൃഗത്തോട് ഭയങ്കര ഒരു വൈരാഗ്യം പോലെ ആണ് തോന്നുന്നത് കാരണം എന്നു വച്ചാൽ അത് നമ്മളൊരു മൃഗത്തെ സംരക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ ഇപ്പോൾ തെരുവിൽക്കൂടി നടക്കുന്ന ഒരു പട്ടീനെ നമ്മൾ സംരക്ഷിച്ച് അതിനെ വളർത്തി എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ആണ് ഇപ്പോൾ അത് എവിടെയെങ്കിലും പോയിട്ട് ചാവുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അപ്പോൾ അതേപോലെ മൃഗസംരക്ഷണം കൂടി സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ട്